നമ്മൾ അടുക്കളയിൽ ഹിറ്റ് ആണ് കൂടുതലും ഉപയോഗിക്കാറ് ഹിറ്റ് പാറ്റ ഗുളിക മുതലായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ എലിയെയും പല്ലിയെയും ഒഴിവാക്കാറു പിന്നെ എലിയെ ഒഴിവാക്കാൻ നമ്മൾ രാത്രി കെണി വെക്കും കെണി വെക്കുമ്പോൾ നമ്മൾ അതിൽ പഴം വെക്കും അപ്പോൾ എലി വേഗം വരും അങ്ങനൊക്കെയാണ് നമ്മൾ എലിയെ അങ്ങനെ പിടിച്ചിട്ടു എലിയെ വേറെവിടെയെങ്കിലും കൊണ്ട് കളയാറാണ് സാധാരണ ചെയ്യാറ് നമുക്കെലിയെ അങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ എലി പോകില്ല എലി പോകാതെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ രാത്രി എലി കെണി വെക്കും അതിലൊരു പഴവും അല്ലെങ്കിൽ വല്ല ബെല്ലോ അങ്ങനെയെന്തെങ്കിലും വെക്കും അപ്പോൾ എലി കഴിക്കാൻ വരുന്ന സമയത്തു എലി അതിൽപ്പെടും അപ്പോൾ നമ്മൾ എലിയെ ഒന്നുകിൽ പുറത്ത് കൊണ്ട് കളയും കൊല്ലാറില്ല അതിനെ പുറത്തു കൊണ്ട് പോയി കളയുകയാണ് വല്ല തൊടിയിലും കൊണ്ട് വിടാറാണ് സാധാരണ പതിവ് അങ്ങനെയാണ് ചെയ്യുക പിന്നേ പാറ്റേനെ ഒഴിവാക്കാൻ പാറ്റേനെ ഒഴിവാക്കാൻ പാറ്റ ഗുളിക ഹിറ്റ് മുതലായ സാധനങ്ങളാണ് ഉപയോഗിക്കാറ് ഇങ് അങ്ങനെയാണ് പാറ്റേനെ ഒഴിവാക്കാറ് പിന്നെ എൻ്റെ വീട്ടിലധികം പാറ്റയും എലിയും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല എട്ടുകാലിയാണ് ആകെ ഉള്ളത് അങ്ങനെ വലിയ കുഴപ്പമില്ല അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ് പിന്നെ ശുചിമുറിയിലും നമ്മൾ പാറ്റ ഗുളിക വെക്കലാണ് മെയിൻ പരിപാടി പാറ്റ ഗുളിക വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എല്ലാം പോകാറാണ് സാധാരണ രീതിയിൽ നടക്കാറ്